ഹലോ നമസ്കാരം പറഞ്ഞോളൂ മൂന്നാർ ആ അതെ മൂന്നാർ എത്ര പേരുണ്ടാവും നിങ്ങൾ മൂന്നു പേർ എല്ലാം എപ്പഴത്തേക്കാണ് എപ്പോഴത്തേക്കാണ് അല്ല ഇത് ഇന്ന് പോവാനാണോ ഓക്കേ ഓക്കേ അടിമാലി ഹോട്ടലിൽ ഉണ്ടാവും അവിടെ നിന്ന് മൂന്നാറിലേക്ക് അല്ലേ ഏകദേശം ഒരു മുവായിരം രൂപ ആവും ഹലോ അത് സാറേ റോഡ് ഒക്കെ ഭയങ്കരം മോശം അല്ലേ അപ്പോൾ വണ്ടിക്ക് പണി വന്നാൽ ആയിരം രൂപക്ക് പറ്റില്ല സാറേ അത് മൂന്ന് പേര് ഉണ്ടെന്ന് അല്ലേ പറഞ്ഞത് ലോഡ് വലിക്കണ്ടേ എന്നാൽ സാർ

ആ എന്നാൽ ഒരു രണ്ടേ അഞ്ഞൂറിന്

അങ്ങനെ ടു ഇത് വെയ്റ്റിംഗ് എത്ര ഒരു മിനിമം ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെയിറ്റ് ആക്കാം പത്ത് ഒരു അഞ്ച് മിനിട്ടൊക്കെ വെയിറ്റ് ആക്കാം കൂടുതൽ ആയാൽ വെയിറ്റിംഗിന് അതെ അപ്പോൾ ഒരു മിനിമം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ വെയിറ്റ് ആക്കാം ആ പിന്നെ കൂടുതൽ ആയാൽ പിന്നെ വെയിറ്റിംഗ് ചാർജ് തരേണ്ടി വരും ആ രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറിന് പോവാം പക്ഷെ വെയിറ്റ് വെയിറ്റിംഗ് ചാർജ് തരേണ്ടി വരും ആ ശരി രണ്ടായിരത്തി ശരി രണ്ടായിരത്തി ഇരുന്നൂറിന് ഓക്കെ അ പിന്നെ ഇത് ഹോട്ടൽ ആ ഇത് പിന്നെ അവിടെ നിന്ന് മൂന്നാർ നിന്ന് വേറെ എവിടെയും പോവാൻ ഇല്ലല്ലോ മൂന്നാർ ഇല്ല ഇല്ല ഇല്ല ശരി ശരി ആ അപ്പം ഞാൻ ഒരു മണി ആവുമ്പോൾ അവിടെ എത്താം ഉം ആ ഓക്കെ ശരി